ഞങ് ഇത് ഞാനെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോൺ ഓപ്പോയാണ് അപ്പോൾ ഓപ്പോ ഫോണിൻ്റെ അത് നല്ലരീതിയില് വിസ് ചെയ്യാ എട് എടുക്കാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന് അപ്പൊ ആ ഫോണില് എനിക്ക് കിട്ടിയിരുന്നെങ്കില് നല്ല ഒരു കമ്പനിടെ പ്രോഡക്റ്റാന്ന് തന്നെയാന്ന് ത് എനിക്ക് തോന്ന്ന്ന് അപ്പോൾ ആ ഓപ്പോ ഫോണിൻ്റെ എല്ലാ ഫെസിലിറ്റിയും റീ റീചാർജും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാവുന്നു തോന്നുന്നു അപ്പം അതു ചെയ്തത് മുന്നോട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു